ആ ആ ഇത് മഹാറാണി ഹോട്ടൽ അല്ലേ ആ അവിടെ ഐറ്റംസ് എന്തൊക്കെയാണ് ഉള്ളത് വെജിറ്റബ്ൾ ആണോ ഇത് ഹോട്ടല് വെജിറ്റേറിയൻ ഹോട്ടലാണ് ആ നോൺ വെജിറ്റേറിയൻ ഇല്ല അ അ എന്തൊക്കെ ഐറ്റംസ് ഹ്മ്മ് വെജിറ്റബ്ൾ ബിരിയാണി അല്ലേ എനിക്ക് അവിടെ

ആ ആ അപ്പവും പുട്ടും ആക്കുവാണോ നിങ്ങളുടെ ഹോട്ടലിലെ ഭഷ്ണത്തിൻ്റെ ഫോട്ടോ ഒന്ന് എടുക്കാനായിട്ടായിരുന്നു കുറേ പേര് നിങ്ങളുടെ ഹോട്ടലിനെ കുറിച്ചു നല്ല കാര്യങ്ങളൊക്ക പറയാറുണ്ട്

മ് അത് അല്ല അത് നിങ്ങൾക്ക് ഇപ്പം വിഷയമൊന്നും ഉള്ള കേസൊന്നും അല്ല കുറേ മ് പേര് നിങ്ങളുടെ ഫുഡിന് ഇപ്പം നിങ്ങളെ ഹോട്ടലിനെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ സംസാരിക്കാറുണ്ട് അപ്പം എൻ്റെ അടുത്ത് വരുന്നവർക്ക് നിങ്ങളുടെ ഹോട്ടലിൽ എന്തൊക്കെ ഉള്ളത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതിൻ്റെ ഫോട്ടോ ഒന്നെടുത്ത് ഇവിടെ ഒന്ന് വരുന്നവരോട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്

ആണോ അതും വേറെ പ്രശ്നം ഒന്നുമില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഹോട്ടലിനൊന്നും യാതൊരു കുഴപ്പം ഉണ്ടാവില്ല ജസ്റ്റ് ഫോട്ടോ എടുക്കുന്നുള്ളൂ ഞാൻ ഇങ്ങനെ വേറെ വേറെ ഹോട്ടലിലൊക്ക പോയി എടുക്കാറുണ്ട് അവരൊന്നും ഇങ്ങനെ സമ്മതിക്കാതെയൊന്നും ഇല്ല അവർകൊക്കെ തലപ്പര്യമാണ് കാരണം അവർക്ക് അത്രയും കൂടി കച്ചവടം കിട്ടുമല്ലോ

നിങ്ങൾക്ക് എന്നാ ലാഭമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അപ്പം എന്തെങ്കിലും ലാഭം വേണമെങ്കിൽ ഞാൻ തരാം മ്മ് എന്നുള്ളൂ കുറച്ചു കൂടുതൽ മതി ആവും പൈസ കുറച്ചു എമൗണ്ട് തരാം എന്നിട്ട് നിങ്ങൾ അത് സമ്മതിക്കുകയാണെങ്കിൽ എനിക്ക് ഉപകാരമായിരിക്കും എൻ്റെ അടുത്ത് വന്നു ആൾക്കാർ അന്വേഷിക്കുമ്പോൾ നമുക്ക് പിന്നെ അതെ കുറിച്ചു പറയാമല്ലോ അത് നിങ്ങളുടെ ഹോട്ടലിന് തന്നെയാണ് ഗുണം കിട്ടുന്നത് മ് നിങ്ങൾ അവിടെ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ എല്ലാ ഐറ്റത്തിൻ്റെയും ഫോട്ടോ വേണം ആ മ് അപ്പം അതിന് എപ്പോഴാണ് സമയമെന്നൊന്ന് പറഞ്ഞാൽ മതി ഞാൻ വരാം ഞാൻ വന്നിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് എല്ലാ ഐറ്റംസും ഉള്ള സമയത്ത് എന്നെ ഒന്നറിയിക്കുകയാണെങ്കിൽ ഞാൻ വരാം അപ്പം എനിക്ക് ഫോട്ടോ എടുത്തുകൊണ്ട് പോരാമല്ലോ

മ് അപ്പം മ് അപ്പം